ചേട്ടാ നിങ്ങളിപ്പോഴാണോ വരുന്നത് ഞാനെത്ര സമയമായി എന്നറിയുമോ ഇവിടെ നിൽക്കുന്നത് ഈ ഓരോ പ്രശ്നങ്ങൾ എനിക്ക് ആ കറക്ട് ടൈമിനവിടെ എത്താൻ പറ്റണ്ടെ നിങ്ങൾ എന്തൊരു പണിയാണ് പറ്റിച്ചത് ഞാൻ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നതെന്ന് അറിയുമോ എന്നു വച്ചാൽ എനിക്ക് വീട്ടിലാണെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നിട്ടും ഞാൻ ആ ടൈമിനു ഇവിടെ വന്ന് എത്തിയതാണ് എനിയിപ്പോൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും വഴിയുണ്ടോ നമ്മൾക്ക് ആ ടൈമിന് എനിക്കവിടെ എത്തണമെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു നമ്മളെ ബുദ്ധിമുട്ടൊന്നു മനസ്സിലാക്കണ്ടേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ടൈമിനു എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ വെറുതെ ആയിപ്പോകും പോയത് തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ടിവരും ഞാനതാണ് പറഞ്ഞത് നിങ്ങളോട് ആ കൃത്യസമയം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത്ര സമയത്ത് തന്നെ വരണം എന്ന് ഞാനിപ്പോൾ എത്ര സമയമായി നിങ്ങളെ വെയ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ വേറെയേതെങ്കിലും ഓട്ടോ വിളിച്ച് പോകുമായിരുന്നു എന്താ ഇനി ചെയ്യുക എനിക്ക് തിരിച്ചു പോയാലും എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഇന്നലേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ സമയം അത് നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാത്തതു കൊണ്ടല്ലേ പറ്റിയത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഷോർട്ട് വഴിയിലൂടെ നമുക്ക് പോകുവാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അയ്യോ ഇനിയവിടെ റോഡ് പണിയാണെന്ന് പറയുന്ന കേട്ടത് അതാണ് ഞാനത്രയും ടൈമ് നിങ്ങളോട് പറഞ്ഞത് നേരത്തേതന്നെ പറഞ്ഞത് എനി ആ റോഡ് പണി അവിടെ ബ്ലോക്കുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം എവിടെയെങ്കിലും നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഷോർട്ട് വഴി ഉണ്ടോ അതിലേ പോവാം നമുക്ക് ഇല്ലെങ്കിലെന്തായാലും കാര്യങ്ങളൊന്നും നടക്കില്ല ഏട്ടാ ഞാനത്രയും നിർബന്ധമായിട്ട് പറഞ്ഞത് നിങ്ങളോട് അതാണ് എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല